ശരീര ഭാരം കൂട്ടാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് നാട്ട് വൈദ്യങ്ങൾ പരീക്ഷിക്കാവുന്നതാണ് ഉദാഹരണമായി നമുക്ക് ഉരുളൻ കിഴങ്ങ് ഭാരം കൂട്ടാനാഗ്രഹിക്കുന്നവർക്കൊരു സ്റ്റാർ ഫുഡാണ് ഉരുളൻ കിഴങ്ങ് എന്താണെന്ന് വച്ചാൽ കഴിഞ്ഞാൽ അതിൽ ഇപ്പം എന്താണ് ചെറിയ അന്നജം ഒരുപാട് അടങ്ങിയ സാധനാകുമ്പോൾ ഉരുളൻ കിഴങ്ങ് വേഗം ദഹിക്കും പിന്നെ അതിൽ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവും കൂട്ടും പിന്നെ എന്താണ് വച്ചാൽ ഈ അന്നജം ഗ്ലൂക്കോസായി മാറും ഇത് ശരീരത്തിനാവശ്യമായ ഊർജ്ജം നൽകും പിന്നെ എന്താണ് പറയുക നമ്മൾ ഇപ്പം ആവശ്യമുള്ളതിലും അധികമുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പ് ആക്കി മാറ്റുന്നു ഇത് ശരീരഭാരം കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്നു പിന്നെ ഉണക്ക പഴങ്ങൾ നല്ല ഉപകരമാണ് നമ്മുടെ ശരീര ഭാരം കൂട്ടാൻ അതായത് ഇപ്പം പഴങ്ങളിൽ നിന്ന് ജലാംശം നീങ്ങുമ്പോൾ അവയിലെ പോഷകങ്ങളുടെയും പിന്നെ എന്താണ് പറയുക നമ്മുടെ പഞ്ചസാരയുടെയും ഗാഢത കൂടും അത് കലോറീം ശരീര ഭാരോം കൂട്ടും പിന്നെ സാലഡ് ഇറച്ചി ധാന്യം തൈര് ഇവയുടെ ഒക്കെ എല്ലാ ടോപ്പിങ്ങായി ഉണക്കപ്പഴങ്ങൾ കഴിക്കാനാണ് പല വിദഗ്ധരും നമ്മളോട് പറയുന്നത് പിന്നെ വാഴപ്പഴം ഒരു പരിധി വരെ നമ്മളെ തടി കൂട്ടാൻ അത്രയും ഉപകാരമാണ് അതായത് വാഴപ്പഴം എങ്ങനെയാണ് വച്ചാൽ ലഘു ഭക്ഷണമായിട്ടോ വർക്ക് ഔട്ടിന് ശേഷമോ ഒക്കെ വാഴപ്പഴം നമുക്ക് കഴിക്കാം മറ്റ് പഴങ്ങളേക്കാൾ അധികവും പഞ്ചസാരയും കലോറിയും എന്തിലുണ്ട് വാഴ പഴത്തിലുണ്ട് ദഹനം നമുക്ക് സുഗമമാക്കാനും മാനസിക നില മെച്ചപ്പെടുത്താനും നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് എന്താണ് വാഴപ്പഴം കഴിക്കാന്നാണ് വിദഗ്ദ്ധർ പറയണത് പീനട്ട് ബട്ടറ് ശരീരഭാരം കൂട്ടാൻ വളരെ നല്ലതാണ് പീനട്ട് ബട്ടറ് ഏറ്റവും നല്ലതാണ് അത് പിന്നെ ബദാം വാൽനട്ട് പിസ്ത ഒക്കെ നല്ലതാണ് ശരീര ഭാരം കൂട്ടാൻ